യുവജനങ്ങൾ കായികരംഗത്ത് പങ്കെടുക്കാൻ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ലെന്ന് മീൻസ് രണ്ടു രീതിയിൽ പറയാം ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം കാരണം എല്ലാതും നമ്മളുടെ മീൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ വീട്ടുകാരുടെ സപ്പോർട്ടും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും ഒക്കെയാണ് ഇപ്പൊരു പേഴ്സണ് അത്രയും ഇഷ്ടപ്പെട്ടുണ്ടൂണ്ടുണ്ടെങ്കിലും അയാളുടെ സ്വയം ഇഷ്ട പ്രകാരം പോകാൻ പറ്റില്ല കാരണം അവർക്കൊരു പിന്തുണ വേണം അപ്പം നമ്മളെ ചില ആൾക്കാർ അതായത് ഒരാൾക്ക് ആഗ്രഹമുണ്ടായിട്ടു മാത്രം കാര്യമില്ലയെന്നു പറയും എല്ലാവരും പക്ഷെ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അയാൾക്കയാളുടെ കഴിവ് കുറു കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും അപ്പോൾ എന്താ അയാൾക്ക് മീൻസ് ആ ഒരാൾക്ക് എന്താ കഴിവില്ലയെന്നു വ് വെക്കട്ടെ പക്ഷെ അയാൾക്കത്രയും ആഗ്രഹമാണ് അപ്പോൾ അത്രയും ആഗ്രമുള്ളൊരാൾക്ക് അയാളുടെ ബാക്കിൽ നിന്നാളൊരു സപ്പോർട്ട് കിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് മുന്നോട്ടു വരാൻ പറ്റും അപ്പം ഇന്നത്തെ കാലത്ത് ആ ഒരു സപ്പോർട്ടിന് ആൾക്കാർ വളരെ കുറവാണ് അപ്പോൾ ഇല്ലയെന്നു പറയാം പക്ഷെ ചില വീട്ടാരൊക്കെ വെച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പഠിപ്പിനേക്കാളും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് കായിക രംഗത്ത് നമ്മളുടെ കഴിവു തെളിയിക്കാനെന്നായിരിക്കും അപ്പോൾ ആ ഒരിത് വെച്ചു നോക്കുമ്പോൾ ഉണ്ടെന്നും പറയാം കാരണം ഇന്ന് ഇന്നത്തെ കാലമെന്നു പറഞ്ഞാൽ പണ്ടത്തെ കാലം മാതിരിയല്ല ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പുരോഗമനം പുരോഗമനം വന്നിട്ടുണ്ട് അപ്പോൾ തീരെ ഇല്ലയെന്നു നമുക്കു പറയാൻ പറ്റത്തില്ല കാരണം ഉണ്ട് പക്ഷെ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതുപോലെത്തന്നെ കായിക രംഗത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടെന്താണ് ചെയ്യേണ്ടതെന്നു വെച്ചാൽ ആ ഒരു പേഴ്സണെ നമ്മളത്രയും മോട്ടിവേറ്റ് ചെയ്യുക കാരണം എന്തൊക്കെ വന്നാലും തനിക്കിഷ്ടമുള്ള ഒരു മീൻസ് കായിക രംഗം അത്രയും ഇഷ്ടപ്പെടുന്നൊരാൾക്ക് ഒരാളാണെന്നുണ്ടെങ്കിൽ നീ ചെയ്യ് നീ നീ അതിലേക്കെന്നെ പോ എന്നുള്ള രീതിയിലൊരു സപ്പോർട്ട് കൊടുക്കുക അതാ നമ്മളേറ്റവും ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമെന്നു വെച്ചാൽ അപ്പോൾ അതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത്